നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മലയാള ഭാഷക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന മറ്റൊരു ഭാഷയാണ് ഇംഗ്ലീഷ് അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് ഒരു ജോലി പോലും കിട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നോണ്ടിരിക്കുന്നത് അത് കൊണ്ട് മലയാള ഭാഷയുടെ പ്രാധാന്യം നമ്മുടെ കേരളത്തിൻ്റെ ആക്രിക്കടയിലൊക്കെ വളരെ കുറഞ്ഞ് കുറഞ്ഞ് വരുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം മലയാള ഭാഷ പറയുന്നത് തന്നെ വളരെ ചുരുക്കമാണ് നമ്മൾ നാട്ടിലുള്ളപ്പോൾ സംസാരിക്കുന്ന ആ ഒരു സംസാരം മാത്രമേ ഇപ്പം നമുക്ക് മലയാള ഭാഷ കൊണ്ട് ഉപയോഗമുള്ളു അല്ലാതെ മലയാള ഭാഷ നമുക്ക് ഇപ്പം വേറെ ഒന്നും ഒരു പ്രതേകിച്ച് ഉപയോഗമൊന്നുമില്ല കൂടുതലും ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മറ്റൊരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്നാണ് ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന ഒരാൾക്ക് ഭയങ്കര നല്ല രീതിയിൽ ടാലൻറ്റ് കൂടും എന്നുള്ളത് കൊണ്ടും അവർക്ക് ആ ഒരു ഭാഷ സംസാരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് കൂടുതൽ എന്ത് ജോലി സാധ്യത ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് മലയാള ഭാഷ ഇപ്പം ചുരുക്കം കണ്ട് വരുന്നത് നമ്മുടെ ഈ പത്രങ്ങളിലും മ പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമം അത് കൂട്ടുള്ള ആൾകാരിലൊക്കെയാണ് കൂടുതലും മാധ്യമ പ്രവർത്തകരൊക്കെ അവരൊക്കെയാണ് ഇപ്പോൾ മലയാള ഭാഷയിൽ ഇച്ചിരികൂടെ പ്രാധന്യമായിട്ട് കൊടുക്കുന്നത് ഈ പത്രം പോലുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം വിദ്യാഭ്യാസം മലയാളം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും അത് ഒരു ഒരു വിഷയം എന്ന രീതിയിൽ മാത്രം മലയാള ഭാഷ ഒതുങ്ങി പോകുവാണ് ശരിക്കും പറയുവാണെങ്കിൽ കുട്ടികളിലേക്ക് മലയാള ഭാഷ നമ്മുടെ രാഷ്ട്രഭാഷ നമ്മുടെ രാഷ്ട്രഭാഷ അല്ല സോറി നമ്മുടെ നമ്മുടെ ദേശീയ ഒരു ഭാഷ തന്നെയാണ് മലയാളം നമ്മുടെ കേരളക്കാർക്ക് മലയാള ഭാഷ കഴിഞ്ഞിട്ടേ ഉള്ളു കാരണം രാജ്യത്ത് നമ്മുടെ ഈ ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതൊരു വിലയാണ് അതാണ് മലയാള ഭാഷയുടെ ഒരു പ്രാധാന്യംന്ന് പറയുന്നത് കാരണം ഈ ഒരു ഭാഷ അറിയാവുന്ന അല്ലേൽ കേരളത്തിലുള്ള ഒരാൾ മറ്റൊരു രാജ്യത്ത് പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ മലയാള ഭാഷയുടെയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് അവർക്ക് കൂടുതലും എന്താണ് ജോലി സാധ്യതകളും കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പ്രാധാന്യം കിട്ടുന്നത് നമ്മുടെ മലയാള ഭാഷായെന്ന് പറയുമ്പം എന്താണ് പണ്ടുള്ള ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളമാണ് മാത്രമല്ല അവർക്ക് ഈ പത്രം അതുപോലെ തന്നെ മാസിക ഇതിലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മലയാള ഭാഷ അതിലേക്കൊക്കെ ചുരുങ്ങി വരുവാണ് അതിലേക്ക് ഒതുങ്ങി വരുവാണ് ചെയ്യുന്നത് മെയിനായിട്ടും അപ്പം നമ്മുടെ മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം ഇപ്പോൾ നിലവിൽ കിട്ടുന്നത് മാധ്യമം പോലത്തെ പത്രം മാധ്യമം അതുപോലെ പത്മ പത്രങ്ങൾ അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന അതായത് ഒരു ഒന്നു മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് പത്ത് വരെയല്ല സോറി പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഒരു വിഷയം മാത്രമാക്കി ഒതുങ്ങുകയാണ് നമ്മുടെ മലയാളം അപ്പം മലയാള ഭാഷ ആരും മറക്കാതെ ഇരിക്കുക എന്നാണ് വന്ന് നമുക്ക് നമ്മുടെ ദേശീയ ഭാഷയാണല്ലോ മലയാളം അത് എന്താണ് ചെറിയ രീതിയിലേക്ക് ചുരുങ്ങി പോകുന്നതിനോട് വളരെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും മലയാള ഭാഷയുടെ എന്തേ നമ്മുടെ ദേശീയ ഭാഷയാണല്ലോ അപ്പോൾ അത് ഒരിക്കലും മറക്കാതെ ഇരിക്കുക